മറ്റുള്ളവരെന്നു പറയുമ്പോൾ ഇപ്പോൾ എൻ്റടുത്ത് ചെറിയ ഇപ്പോൾ എൻ്റെ ഒരോണപ്പരിപാടി വന്നപ്പോൾ ഒരു സിനിമാറ്റിക് ഡാൻസ് ഒരു നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികളൊക്കെക്കൂടി ഒരു സിനിമാറ്റിക് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പാട്ട് വെച്ചിട്ട് അതിനു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൃത്തം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്സുകള് ഇപ്പോൾ അവരും പറയും ഞാനും പറയും അങ്ങനെ രണ്ടാളും കൂടെ പറഞ്ഞു പറഞ്ഞു ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു നൃത്തരൂപം ഒരു സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ ഞാനുണ്ടാക്കിയ സ്റ്റെപ്പുതന്നെ എടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവര് സ്റ്റേജില് ആ നൃത്തരൂപം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരനുഭവമായിരുന്നു ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിച്ചതിനു ശേഷം ഒരുപാട് കാലത്തിനു ശേഷം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയത് നല്ലൊരനുഭവം തന്നെയാണ് അവരുടെ കൂടെ കളിക്കാനും അതുപോലെ ഞാനെൻ്റെ ചെറിയ പ്രായത്തിലേക്ക് എൻ്റെ ചെറിയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ആ ഒരു സമയത്ത് പോയി അതൊക്കെ എനിക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു